ആ ഞാൻ ഡോക്ടർ അല്ലേ ആ എനിക്കേ തലവേദനയും പനിയും ആയിരുന്നു ജലദോഷവുമുണ്ട് ഇടയ്ക്ക് രണ്ട് ദിവസം കഴിഞ്ഞു ഇപ്പം ഇല്ല പാരസെറ്റമോള് കഴിച്ചിരുന്നു ഇല്ല അങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല തൊണ്ടവേദന അങ്ങനെയൊക്കെ തൊണ്ടവേദനയില്ല ചുമ ചുമയുണ്ട് ആ കഫക്കെട്ട് ചെറുതായിട്ടുണ്ട് ആ കഫമായിട്ട് ഇടയ്ക്ക് തുപ്പുമ്പോൾ കഫമായിട്ട് പോണുണ്ട്

മേല് വേദനയൊന്നുമില്ല ഇല്ല തലവേദനയില്ല

ആ ആ ആ ആ ചുമ കുറേ ദിവസമുണ്ട്

വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല ഈ ഇതുതന്നെ ബുദ്ധിമുട്ടുള്ളൂ

ആ ആ ആ

വേറെയാർക്കും ഇല്ല ആ ആ ആ